ആ ഇത് ആ വെജിറ്റബിൾ സ്റ്റോർ അല്ലേ ആ ഇത് ആ എനിക്ക് എനിക്കിപ്പോൾ ആ എനിക്ക് പച്ചക്കറി വേണമായിരുന്നു കുറച്ച് ഒരു കല്ല്യാണം ആ കല്ല്യാണത്തിന് ആ ഓക്കെ കല്ല്യാണം ഉണ്ട് ആ ഇത് ഇത് ഞാൻ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആണ് കേട്ടോ അപ്പോൾ ഡിസ്കൗണ്ട് എന്തെങ്കിലും അത്രയ്ക്കൊക്കെ ഉണ്ടല്ലേ ആ ലിസ്റ്റ് ഉണ്ട് ഉം രണ്ട് വെള്ളരിക്ക രണ്ടിന് ആ സാമ്പാറിനുള്ളതെല്ലാം വേണം കേട്ടോ ആ ഒരു ഒരു തൗസൻഡ് ആൾക്കാരുണ്ടാവും അത് ഞാനുണ്ട് സാമ്പാറിനുള്ളത് ആ മാത്രം അല്ല പിന്നെ പിന്നെ കുറച്ച് കോവയ്ക്ക വേണം പിന്നെ സാമ്പാറിൻ്റെ പൊടിയുണ്ട് ആ വേറെ ഓക്കെ പിന്നെ പിന്നെ വെജിറ്റബിൾ പിന്നെ എന്താണ് ആ കക്കരി വേണം കക്കരി കക്കരി ഒരു അൻപത് എടുക്കാം സാലഡ് ഉണ്ടാക്കാൻ

ആ മതിയാവും ഹലോ ആ മാം കേൾക്കുന്നുണ്ട് ആ പിന്നെ ആ അങ്ങനെ അതൊക്കെ വേണം വേറെ ആ ഉണ്ട് ഓക്കെ അപ്പോൾ അതും കൂടി എടുത്തോ ഓക്കെ ആ ഓക്കെ മാം ഞാൻ സ്ഥിരം കസ്റ്റമർ ആണ് അപ്പോൾ ഡിസ്കൌണ്ട് എന്തെങ്കിലും ആ ഓക്കെ മാം ഓക്കെ ആ ഓക്കെ ഓക്കെ ശരി ആ